ആ കുറച്ച് ഫർണിച്ചറുകൾ നോക്കണമായിരുന്നു ആ നമുക്കൊരു ഹൌസ് വാമിങ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ വേണമായിരുന്നു അപ്പോൾ ഡൈനിങ്ങ് ടേബിൾ അലമാര സോഫ ചെയർ കാര്യങ്ങളൊക്കെ വേണം അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണം

ആ ഒരു എട്ടു പേരുണ്ട് അപ്പോൾ ആ അത്രയും പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഓക്കെ ആ ആ ഓക്കെ അങ്ങനത്തെ മതി അത്യാവശ്യം ഹാൾ വലിപ്പമുണ്ട് അപ്പോൾ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഇതിപ്പോൾ ഇതിപ്പോൾ എത്രയാണ് എമൌണ്ട് പതിനെട്ടായിരമോ ആ ഓക്കെ ആ ഈ അലമാരയൊക്കെ എത്ര വരും റേറ്റുകൾ ആ ഓക്കെ ഈ തേക്കിന്റെയൊക്കെ എത്ര റേറ്റ് വരും ഓക്കേ ഓക്കേ അതേയല്ലേ പിന്നെ സോഫ റേറ്റ് അതൊക്കെയോ ഓക്കെ ആ അതും അത് ആ അതേ ആ ഏയ് നമുക്ക് ടീപ്പോയി കൂടി ഉള്ളതാണെങ്കിൽ കുറച്ച് കൂടി സൗകര്യം ആവും ആ അങ്ങനത്തേത് നോക്കാം ആ അതേയല്ലേ ആ നമുക്ക് നമുക്ക് ചെറിയ ടേബിളും വേണമായിരുന്നു സെപ്പറേറ്റ് അല്ല നമ്മൾ ഈ ഡ്രോ ഉള്ള ടേബിൾ ഉണ്ടാവുമല്ലോ

ആ ആ ആ ചെയർ വേണം നമുക്ക് ചെയർ കുറച്ച് സെപ്പറേറ്റ് വേണം ഇപ്പോൾ അതിനു പറ്റിയ ചെയറും ടേബിളും ആ ആ ശരി ഇത് ഇവിടെ നിന്ന് സാധനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഡെലിവെറി ചാർജൊക്കെ ആ ഒരു നാലു കിലോമീറ്റർ ഉണ്ടാവും

ആ ഓക്കേ ഓക്കേ ആ ഓക്കേ മൊത്തത്തിൽ ഇതിന് ഡിസ്കൌണ്ട് ഉണ്ടാവുമോ എടുക്കുമ്പോൾ ആ ഓക്കേ ഓക്കേ ഓക്കേ ആ ഇപ്പോൾ ആ അലമാര അതേ

വാതിൽ ഇവിടെ വച്ച് അതിൻ്റെ ഇതുണ്ടോ ആ ഓക്കെ

ആ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്നെത്തിച്ചു തന്നാൽമതി ഞങ്ങൾ വേറെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം ആ ശരി